ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റെന്ന് പറഞ്ഞാൽ ചാർജ്ജറാണ് ചാർജ്ജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നുണ്ട് നല്ല രീതിയിലുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഫൈവ് വോൾട്ടിൻ്റെ ചാർജർ ആയത് കൊണ്ട് നമുക്ക് ഭയങ്കര ഫോണിൽ കുത്തുന്ന ഫൈവ് വോൾട്ടിൻ്റെ ചാർജ്ജറായതുകൊണ്ട് ചാർജ് കയറാനൊക്കെ ഭയങ്കര പാടാണ് ചില സമയങ്ങളിൽ ഇതിൻ്റെ കേബിൾ പൊട്ടിപ്പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാൻസുണ്ട് അപ്പം അതിൻ്റെ അഗ്രഭാഗത്തും അതായത് നമ്മൾ കുത്തുന്ന ഭാഗത്തും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് അവിടെ ചെറുതായിട്ടൊരു എന്താ പറയുക പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ചാർജ് കയറലൊക്കെ കുറയും സ്പീഡ് കുറയും ഇപ്പോൾ നമ്മളൊരു അഞ്ച് മണിക്കൂർ കുത്തി ഇട്ടാൽ പോലും ഫുൾ ചാർജും കാര്യങ്ങളൊന്നും ആകുന്നില്ല ഇപ്പോൾ ഒരു ശതമാനത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ ഫോൺ കുത്തിയിട്ട് കഴിഞ്ഞിട്ടും ഇത് ഒരു ശതമാനത്തിൽ കുത്തിയിട്ട് ഇത് വരെ അത് ചാർജ് കയറിയിട്ടില്ല ഇപ്പോഴും ഒരു രണ്ടോ മൂന്നോ പേഴ്സൻറ്റേജ് മാത്രമാണ് കയറിയിരിക്കുന്നത് എന്തോ ഫോണിന് എന്തോ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ചാർജ്ജറിനുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ഉപയോഗിക്കുന്നതാണെങ്കിലും ചാർജർ ഇപ്പം മസ്റ്റാണ് കാരണം ചാർജ ചാർജെൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാർജ്ജീയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകൂ